ശരീരഭാരം കുറവായിരിക്കുന്നുവെന്നത് പലരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർക്കിടയിൽ ശരീരഭാരം കൂട്ടാൻ അവർ ശരണം പ്രാപിക്കുന്നത് പലപ്പോഴും വീടുകളിൽ അവശേഷിക്കുന്ന പാരമ്പര്യമായ നാടൻ വൈദ്യങ്ങളിലാണ് പ്രകൃതിദത്തമായ രാസമുക്തമായ മാർഗ്ഗങ്ങളിലൂടെയാണ് ഇവ മുന്നോട്ടുപോകുന്നത് മലയാളത്തിലെ പ്രാചീന ഐതീഹ്യങ്ങളും വിശ്വാസങ്ങളും ചുരുങ്ങിയതാക്കി ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് ചെറുപയർ നെയ്യ് പൊടി അഥവാ അരിച്ച ചെറുപയർ പൊടിയെടുത്ത് അതിൽ നെയ്യ് ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്ന പതിവ് നമ്മുടെ ഗ്രാമത്തിൽ പൊതുവേ കണ്ടുവരുന്നുണ്ട് ചെറുപയർ പ്രോട്ടീൻ സമൃദ്ധമാണ് നെയ്യ് മികച്ച കൊഴുപ്പും ഊർജ്ജവുമാണ് ഇത് ഇത് മസിൽ വളർച്ചയ്ക്കും ഭാരം കൂട്ടാനും സഹായിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ രണ്ടാമത്തെയൊന്നാണ് തേനും കശുവണ്ടിക്കായ ലേഹ്യവും അഥവാ കശുവണ്ടിക്കായ ഉണക്കിയതും ശുദ്ധമായ തേനും കുറച്ച് നെയ്യുമാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇത് കൈവിരൽ അളവിൽ ദിവസേന കഴിക്കുന്നത് ശരീരത്തെ പോഷിപ്പിക്കുകയും ഭക്ഷണ ദഹനശേഷി കൂട്ടുകയും ചെയ്യുന്നു മൂന്നാമതായി ഇഞ്ചിയും ശർക്കരയും ചേർത്ത കൂട്ടായ്മയാണ് അഥവാ ഇഞ്ചിപ്പൊടിയും ശർക്കരയും ചേർത്ത് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് പാകം ചെയ്യുന്നത് രാവിലെ കാൽ വിളക്ക് സമയത്ത് എടുത്ത് കഴിക്കുന്നത് വിശപ്പ് കൂട്ടുന്നതിനും ജീർണശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിച്ച് വരുന്നൊരു ഔഷധ പാചകമാണ് നാലാമതായി മുള്ളങ്കിയിലയുടെ കഷായം അഥവാ മുള്ളങ്കിയിലകൾ വെള്ളത്തിൽ വേവിച്ച് കഷായമാക്കിയ ശേഷം അതിൽ വെള്ളം ചേർത്ത് കുറച്ച് ഹണിയോടൊപ്പം കഴിക്കുന്നതാണ് പ്രചാരത്തിലുള്ള മറ്റൊരു ഉപായം ഇത് രക്തഹീനതയ്ക്കും ക്ഷീണത്തിനും ചികിത്സയായി ഉപയോഗിക്കുന്നുണ്ട് അഞ്ചാമതായി നാളികേരത്തൈലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ് അഥവാ പഞ്ചസാരയും നാളികേരത്തൈലവും ചേർത്ത് കുറച്ച് ഏലക്കായ മസാലകളും ചേർത്തുണ്ടാക്കുന്ന ലേഹ്യമാണ് ദിവസേന ഓരോ അളവിൽ കഴിക്കുന്നത് ശരീരം പോഷിപ്പിക്കാനും ഭാരം കൂട്ടാനും സഹായിക്കുന്നുണ്ട് ആറാമതായിട്ട് കഞ്ഞി കൊണ്ട് ആഹാരം ആരംഭിക്കുകയെന്നുള്ളതാണ് അഥവാ മൺചോറും നാളികേരപ്പാലും ചേർത്ത കഞ്ഞിയും ചെറു കറി ചേർത്ത് കഴിക്കുന്നതുമാണ് മറ്റൊരു പ്രചാരത്തിലുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് ഗ്രാമങ്ങളിലോ പഴയ കുടുംബങ്ങളിലോ ഇപ്രകാരം തീർത്ത ഭക്ഷണങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുന്നത് ശരീര വളർച്ചയ്ക്ക് അനുകൂലമാണെന്ന് കരുത്തുന്നുണ്ട് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ നാട്ടുവൈദ്യങ്ങൾ എപ്പോഴും സൗമ്യവും പ്രകൃതിദത്തവുമാണെങ്കിലും ഇവയെല്ലാം ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്ക് അനുസൃതമല്ല ചിലപ്പോൾ അമിതമായ കൊഴുപ്പും പാചകവിധികളും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയാക്കാം അതിനാൽ ഈ രീതികൾ തുടക്കംകുറിക്കുന്നതിന് മുമ്പ് ഒരു ആരോഗ്യവിദഗ്ധന്റെ ഉപദേശം തേടുന്നത് വളരെ ഉചിതമാണ് കൂടാതെ നല്ല ആഹാരക്രമവും വ്യായാമവും ചേർത്തുള്ള സമന്വയത്തിലാണ് ശരീരഭാരം ആരോഗ്യകരമായി കൂട്ടാൻ കഴിയുന്നത്